പിന്നെ ഡാൻസ് പാട്ട് എന്നുള്ള രീതികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഗ്രൂപ്പ് ഡാൻസും പിന്നെ തിരുവാതിരയും നാടോടി നൃത്തവും അങ്ങനെ പല തരത്തിലുള്ള പരിപാടികൾക്കും ഞാൻ കൂടും ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായി എന്നാലും കുടുംബശ്രീയിൽ ഉള്ളതുകൊണ്ട് കുടുംബശ്രീക്കാർ കളിക്കുമ്പോൾ അവരെ കൂടെ കളിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങളെ വാർഷികം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തിരുവാതിര കളിക്കുന്നുണ്ട് അതിൽ എന്നേയും പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ കളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പഠിച്ച് വരുന്നതേയുള്ളൂ പിന്നെ സ്റ്റെപ്പ് എടുക്കാനൊക്കെ കുറച്ച് വിഷമമുണ്ട് കയ്യും കാലുമൊക്കെ എല്ലാവരും തിരുവാതിരയ്ക്ക് നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവെല്ലാം ചൂടി കയ്യിൽ നിറയെ വളയും പല തരത്തിലുള്ള ഒരേ തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ കയ്യും കാലിനെല്ലം കുറച്ച് വിഷമമാണ് എന്നാലും ഞാൻ കളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും എന്നേയും കൂടി പങ്കെടുപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും വാർഷികത്തിന് തിരുവാതിര കളിക്ക് പങ്കെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹമാണ് ഇനി മരിക്കുന്നതിന് മുമ്പേ അതൊന്ന് കളിച്ച് കാണിക്കണം എന്ന് എല്ലാവർക്കും കളിക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ട്